ആമസോൺ ഫ്ളിപ്പ്കാർട്ട് തുടങ്ങിയവയിലൂടെ പുസ്തകം വാങ്ങുന്നത് എളുപ്പമാണ് കാരണം നമുക്ക് ആവശ്യം ഉള്ള പുസ്തകങ്ങൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അവര് അത് ആമസോൺ പിന്നെ വീട്ടില് കൊണ്ടുത്തരുകയും അതിനു എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോകുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത് എളുപ്പമാക്കിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം ആ തന്നെയുമല്ല കടകളില് ലഭ്യമല്ലാത്ത പുസ്തകങ്ങൾ ഒക്കെ തന്നെ ആമസോണിലൂടെയും ഫ്ലിപ്കാർട്ടിലൂടെയും ഒക്കെ ഓർഡർ ചെയ്താല് ദിവസങ്ങൾക്കുള്ളിൽ നമുക്കത് കിട്ടുന്നതാണ് അതു കൊണ്ട് തന്നെ അത് എളുപ്പമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേ നമ്മൾ കടയിൽ പോയി യാത്രാസൗകര്യം അതുപോലെ കിട്ടുമോ എന്നുള്ള അതിൻ്റെ ലഭ്യതക്കുറവ് ഒക്കെ വെച്ചുനോക്കുമ്പോള് നമുക്ക് അവിടെ ചെന്നുകഴിഞ്ഞാല് ഇവരോട് ആമസോൺകാരോട് ബുക്ക് ചെയ്തുകഴിഞ്ഞാല് അത് നമുക്ക് കാത്തിരുന്നാൽ മതി താമസംവിനാ നമ്മടെ വീട്ടില് എത്തി ചേരുന്നതാണ് എന്നാണ് മനസിലാക്കിയിട്ടുള്ളത് ഫ്ലി ഫ്ലിപ്കാർട്ടിലൂടെ പുസ്തകം വാങ്ങൽ മാത്രമല്ലാ മറ്റു പല സാധനങ്ങളും ഓർഡർ ചെയ്തു വാങ്ങാറുണ്ട് അതൊക്കെത്തന്നെ സാധനം കൈയില് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരത് തിരിച്ചു കൊണ്ടുപോകുകയും ചെയ്യാറുണ്ട് എന്നാല് നമ്മള്ക്ക് നോക്കി വാങ്ങി എടുക്കാൻ പറ്റുന്നത് കടകളിൽ നിന്ന് ആണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് ഓൺലൈൻ സംവിധാനങ്ങൾ ഇത്തരത്തിൽ പ്രയോഗിക്കുന്നതിനോട് അത്ര താല്പര്യം ഇല്ല നേരിട്ട് തന്നെ ഷോപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അല്ലായെങ്കില് നമ്മള്ക്ക് പെട്ടെന്ന് ഒരു സാധനം മാറ്റി എടുക്കണമെങ്കിലും മറ്റും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും അതും ഒരു പ്രശ്നമാണ് അല്ലാ കിട്ടിയത് നല്ല കാര്യമാണെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കില് അത് ഏറെ സമയം പിടിക്കും എന്നുള്ളൊരു കാര്യമുണ്ട് അതുകൊണ്ട് രണ്ടും നല്ലതുതന്നെയാണ് ആമസോണില് ബുക്ക് ചെയ്താലും ആദ്യം കിട്ടുന്നത് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല രണ് ആദ്യത്തേത് ഡാമേജ് ആണെങ്കിൽ പിന്നെ അൽപ്പ സമയംകൂടെ വെയ്റ്റ് ചെയ്യേണ്ടിവരും എന്നുള്ളത് ഒരു പ്രശ്നമാണ് നമ്മളെ പിൻതിരിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഒരു വസ്ത്രമാണെങ്കിൽ തന്നെ മേടിക്കുന്നത് അത് നമുക്ക് പാകമല്ലാന്നുണ്ടെങ്കില് അത് നമുക്കത് വാങ്ങണ തിരിച്ചു കൊണ്ടുപോകണമെങ്കില് അൽപസമയം പിടിക്കുമെന്നുള്ളത് ഒരു പ്രശ്നമാണെന്നുള്ളത് അതുകൊണ്ട് എനിക്ക് അതിനെക്കാട്ടിൽ താൽപര്യം കടകളാണ്